ജീവിതത്തിൽ കലയ്ക്ക് വളരെയധികം പ്രാധാന്യം തന്നെയാണുള്ളത് വിവിധ കലകൾ എന്ന് പറയുമ്പോൾ പാട്ട് നൃത്തം അങ്ങനെ ഒത്തിരി ഒത്തിരി കലകൾ നമ്മുടെ ഇടയിലുണ്ട് ഈ സംഗീതം എന്ന കല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു എന്തുവാ പറയുക ഒരു സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലോ എന്തെങ്കിലും ടെൻഷനുകളിൽ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു സംഗീതം കേൾക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അത് നമ്മുടെ മനസ്സിന് ഒരു ശാന്തത നൽകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ആണെങ്കിൽ തന്നെ നൃത്തം ആണെങ്കിൽ തന്നെ ചിലയാളുകൾ നൃത്തം പഠിക്കുന്നതേ ഒരു ജീവിതത്തിൻ്റെ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു ഒരു വിടുതൽ അതായത് സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിത്തന്നെയാണ് ചിലർ നൃത്തം അഭ്യസിക്കുന്നത് ചിലരത് തൊഴിലായിട്ട് എടുക്കുന്നു ചിലരത് പാഷനായിട്ട് എടുക്കുന്നു അങ്ങനെ പലരും പലാ രീതിയിലാണ് ഈ കലകളെ സമി കലകളെ സമീപിക്കുന്നത് പിന്നെ പേ പ്രസം പ്രസംഗം എന്നൊരു കല പ്രസംഗം എന്നൊരു കലയുണ്ടെങ്കിൽ നമുക്ക് ഒരു സമൂഹത്തിന് അല്ലൊരു നാടിനെ തന്നെ നമുക്ക് ഒരു പരുതിവരെ മാറ്റാൻ ഒരു ഒരു നല്ലൊരു പൗ സാധിക്കും മാറ്റാൻ സാധിക്കും ഒരു നല്ലൊരു പ്രാസംഗികൻ ഉണ്ടെങ്കിൽ അവൻ ഒരു ഒരു ഓ എന്താ പറയുക ഒരു സംശത് നല്ല രീതിയിൽ അതായത് നാടിനെ വികസനത്തിനെ പറ്റിയും നാടിൻ്റെ അഭിവൃതി പറ്റിയും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നാട് വികസിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾകൊണ്ട് ഒരു ആശയം ഉൾകൊണ്ട് ഒരു നല്ലൊരു പ്രസംഗം അവിടെ കാഴ്ച്ച വെക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനും പല പല അഭിവൃത്തിയും വേറെയൊന്നുമില്ല ഇതുപോലെ ഓരോ കാര്യങ്ങളിലും മെച്ചപ്പെടാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കല കലക്ക് നല്ല നല്ല പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിനുണ്ട് കലകളിൽ തന്നെ ഇപ്പം ചിലരിൽ കല എന്ന് പറയുമ്പോൾ കഥകളി അങ്ങനെ കോ കുറച്ചു കൂടി ഉയർന്ന ഒരു ഇതിൽ പോകുകയാണെങ്കിൽ കഥകളി കുച്ചുപ്പുടി അങ്ങനെ നമ്മുടെ പിന്നെ പ്രാദേശിക കലകൾ ആ കലകളൊക്കെ ചില മീൻസ് അതിൽ അതിനോട് ഒത്തിരി ഇൻറ്ററെസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ കലകൾ ഒക്കെ ആസ്വദി ആസ്വദ ആസ്വദിക്കാൻ കൂടുതൽ താത്പര്യം ഉണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രുചികൾ ആണല്ലോ അങ്ങനെ കലകൾ സമൂഹത്തിന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്